ഇന്ത്യയിൽ ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ കണ്ടു വരുന്ന ഭാഷ ഇന്ത്യൻ ഇന്ത്യയിലെ ഭാഷ എന്ന് പറയുമ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് പിന്നെ തമിഴ് വരുന്നുണ്ട് പിന്നെ ഉറുദു അങ്ങനെ കുറെ ലാങ്ക്വേജ്കൾ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് എന്നാലും കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനത്തെ ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്യുന്നത് കാരണം ഇപ്പം ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും പുറമെയുള്ളവർക്ക് ഒക്കെ എല്ലാവർക്കും തന്നെ എന്താ പറയാ പഠിക്കാനായാലും സംസാരിക്കാനും എഴുതാനൊക്കെ അറിയുന്ന ഒരു ഭാഷ ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും കണ്ടുവരുന്നത് ഇംഗ്ലീഷ് ആണ് എല്ലാവരും പൊതുവെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലെ ലാങ്ക്വേജ്കൾ കുറെ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണെങ്കിലും ഇപ്പം കേരളം എന്ന് പറയുന്ന രാജ്യത്തൊക്കെ കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് മലയാളം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ മലയാളം ആണ് അവർക്ക് ആശയവിനിമയത്തിനാലായും എഴുതാൻ ആയാലും പറയാൻ ആയാലും എല്ലാത്തിനും അവർക്ക് കൂടുതലെളുപ്പം മലയാളം തന്നെയാണ് അപ്പം അവർ കൂടുതലായിട്ടും മലയാളം ആണല്ലോ ചൂസ് ചെയ്യുന്നത് പിന്നെ ഇംഗ്ലീഷ് അറിയുന്നവരും ഉണ്ട് ഇപ്പോൾ പുറത്തേക്കെല്ലാവരും എന്താ പറയാ ജോലി ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് പുറമെയൊക്കെ പോവുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇംഗ്ലീഷ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും കുറെ ആൾക്കാർ പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് സാധാരണ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പം എനിക്കും അതിനെപ്പറ്റിയാണ് കൂടുതൽ അറിവ് ഉള്ളത്